നമസ്കാരം ചേട്ടാ ആ ഞാൻ ഇവിടെ പച്ചക്കറി ഒന്ന് എടുക്കുവാൻ വേണ്ടി വന്നതാണ് ഈ പച്ചക്കറിക്കൊക്കെ റേറ്റ് എന്താ ഒരു കല്ല്യാണപ്പരിപാടി ഉണ്ട് അപ്പോൾ അതിനു വേണ്ടിയുള്ള പച്ചക്കറി വാങ്ങാൻ വേണ്ടി വന്നതാണ് അപ്പോൾ അതിനുള്ള റേറ്റ് ഒക്കെ ആ ആ

അല്ല ഒരു പരിപാടിക്ക് വേണ്ടിയിട്ടാണ് പച്ചക്കറി വേണം അപ്പോൾ അതിന് മൊത്തം ആയിട്ട് ചേട്ടന്റെ കയ്യിൽ എങ്ങനെയാണ് ഉണ്ടാവുമോ അതോ ആ ഹോൾസെയിൽ ആയിട്ടോ

ആ ചേട്ടാ ഇവിടെ മാത്രം കൃഷി ചെയ്യാണോ അതോ പിന്നെ ബാക്കിൽ ഉണ്ടോ

ആ ചേട്ടാ ഏതൊക്കെ കൃഷികളാണ് ഇപ്പോൾ മെയിനായിട്ട് ചെയ്യണത്

ആ ഞാൻ ലിസ്റ്റ് ആ ഞാൻ വേണ്ട ലിസ്റ്റ് ഒന്നു ഞാൻ ചേട്ടന് അയക്കാം അതിൽ പറഞ്ഞതുതന്നെ ആ ആ ആ ആ ഇത് എത്തിക്കാനൊക്കെ ചാർജൊക്കെ എങ്ങനെയാണ് അപ്പോൾ ഇത് എത്തിക്കാനുള്ള ചാർജൊക്കെ എങ്ങനെയാണ് ഞങ്ങളുടെ അവിടത്തേക്ക് എത്തിക്കാനുള്ള ചാർജ് എൻ്റെ ഇപ്പോൾ സ്ഥലം വരുന്നത് ഒരു പാലക്കാട് ആയിട്ടാണ് വരണത് ആ മൊത്തമായിട്ട് എത്തിക്കും അല്ലേ ആ

ചേട്ടൻ തന്നെ ചെയ്ത് പണിക്കാർ ആവരൊക്കെ ഉണ്ടോ ചേട്ടൻ ഒറ്റയ്ക്കാണോ ഇത് കൃഷി ചെയ്യണത് അതോ കൂടെ

ആ നന്നായിട്ടുണ്ട്